ഹലോ ജോണ് അല്ലേ ജോണെ ഞാനാണ് ഇപ്പോള് നമ്മള് സ്ഥലത്തില്ല ഇച്ചിര അകലെയാണ് അപ്പോള് എനിക്കൊരു സ്കോളര്ഷിപ്പിന്റെ ആവശ്യത്തിലേക്ക് ചില സര്ട്ടിഫിക്കറ്റുകള് മാര്ക്ക് ലിസ്റ്റുകള് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇന്നതിന്റെ അവസാന ദിവസമാണ് പക്ഷെ എനിക്കേതായാലും ഇന്ന് സ്ഥലത്തെത്തി നേരിട്ടത് സമര്പ്പിക്കാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ട് നീ എന്നെ ഒന്നു സഹായിക്കണം എന്റെ ഫോണില് ഡി ഡിജി ലോക്കര് സംവിധാനമില്ല അപ്പോള് അതെങ്ങനെ ഒന്ന് ഇന്സ്റ്റാള് ചെയ്യാന് സാധിക്കും അതേപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരികയും അത് ഇന്സ്റ്റാള് ചെയ്യുന്നതിന് സഹായിക്കുകയും വേണം കേട്ടോ എന്നിട്ട് ഞാനത് നിന്റെ ഈ സര്ട്ട് അതില്നിന്ന് സര്ട്ടിഫിക്കറ്റെടുത്ത് നിന്റെ മെയിലിലേക്ക് അയക്കുന്നതാണ് അത് കോപ്പി എടുത്ത് ഈ പറഞ്ഞ സ്ഥാപനത്തിലൊന്ന് എത്തിച്ചുകൊടുക്കണം